ഞങ്ങളുടെ പ്രദേശത്ത് എടുത്ത് പറയാൻ തക്ക വിധമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിൽ തന്നെയും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗവും അതായത് ഉപയോഗ ശൂന്യമായ പ്ലാസ്റ്റിക്ക് വലിച്ചെറിയുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊതുക് ഇവയൊക്കെ തന്നെയാണ് പ്രധാനമായ പ്രശ്നങ്ങൾ ഇവയ്ക്കു പരിഹാരമായി സാധാരണയായി ചെയ്യുന്നത് കൃത്യം മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കൃത്യമായ പദ്ധതികളും അതോടൊപ്പം മാലിന്യ ശേഖരണത്തിനായുള്ള പദ്ധതികളും ഇവയെല്ലാം വിഭാവനം ചെയ്തിട്ടുണ്ട് അത് കൂടാതെ പാരിസ്ഥിതിക സംരക്ഷണത്തിൻ്റെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി മരങ്ങൾ വച്ചുപിടിപ്പിക്കുകയും അവയെ പരിപാലിക്കുകയും റോഡ് സൈഡിൽ മരങ്ങൾ വച്ച് പിടിപ്പിക്കുകയും തണൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രക്രിയകൾ കാരണം ഇപ്പോൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കുറഞ്ഞ് വരുന്നതായി കണ്ടിട്ടുണ്ട് പാരിസ്ഥിതിക വെല്ലുവിളികൾ എന്തൊക്കെയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പൊതുവായി പറയാനായിട്ട് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്നത് വഴി അത് മണ്ണിൽ കിടക്കുകയും അത് കാരണം മണ്ണിൽ വെള്ളമിറങ്ങാതിരിക്കുകയും ചെയ്യുന്നു ഇത് വെള്ളം കെട്ടിക്കിടക്കുന്നതിനും മറ്റു പല സ്ഥലങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനും അതോടൊപ്പം വേനൽ സമയങ്ങളിൽ ജലലഭ്യതയുടെ കുറവിനും കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ ധാരാളം രോഗം പരത്തുന്ന മാലിന്യങ്ങളും ഇതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടാകാറുണ്ട് ഇത്തരം പ്രശ്നങ്ങളെ നേരിടുന്നതിനായി കൃത്യമായ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കുന്നത് അത് നമ്മുടെ സമൂഹത്തിൽ ധാരാളം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും സഹായകമാകുന്നു